ഞാന് എന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഫ്ലിപ്പ്കാര്ട്ടില് നിന്നാണ് അപ്പോള് ആദ്യമായിട്ട് ഞാന് കൊറോണ ടൈമില് അഞ്ച് മാസ്കുകളാണ് വാങ്ങുന്നത് അപ്പോള് ഇത് വളരെ സേഫായിട്ട് തന്നെ വീട്ടില് എത്തി നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതായത് കൊടുത്തിരുന്ന മാസ്ക് തന്നെയാണ് കിട്ടിയത് ഒരു ഡാമേജും വന്നിട്ടില്ല കൃത്യമായിട്ടാണ് എനിക്ക് കിട്ടിയത് പറഞ്ഞ ഡേറ്റില് തന്നെ കിട്ടി ഒരു ലാഗും സംഭവിച്ചിട്ടില്ല അതുപോലെത്തന്നെ കിട്ടിയ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു ഒരു കുറ്റവും പറയാന് പറ്റുന്ന ഒരു സാധനമല്ലായിരുന്നു